നമ്മുടെ വയനാട്ടിലെ കൽപറ്റ റീജിയണൽ വൊക്കേഷണൽ ട്രെയിനിങ്ങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ അത് അതി അതി അതിമനോഹരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എനിക്ക് വളരെയധികം വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഞാനൊരു കലാലയത്തിൽ ചെന്നൊരു ഫീലാണ് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നത് അതു പോലെ അവരുടെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും എനിക്ക് എനിക്ക് ഉപരി എൻ്റെ എൻ്റെ കൂട്ടുകാർക്കായാലും എനിക്കാ സ്ഥലം അതി ഇഷ്ടമായി അതു പോലെ തന്നെയാണ് നമ്മുടെ ബത്തേരി സുൽത്താൻ ബത്തേരിയിലെ കേരളം ടൂറിസം ആൻഡ് സ്റ്റഡീസ് ട്രാവൽ സ്റ്റഡീസ് അവിടെ ഞാൻ രണ്ട് മാസം അവിടെ ഞാൻ ട്രാവൽ ആൻഡ് സ്റ്റഡീസ് പഠിച്ചു എനിക്ക് എനിക്ക് നല്ലൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതു വരെ കാണാത്ത അനുഭവങ്ങളാണ് എനിക്ക് അവിടെ നിന്നു കിട്ടിയത്